ഞാൻ എടുത്ത ധാരാളം മൊബൈൽ ചിത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം എന്നു പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അതായത് തോപ്രാങ്കുടി കട്ടപ്പന റൂട്ടിൽ പുഷ്പഗിരി എന്നു പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള ഒരു അവടന്നല്ല അവടന്ന് വീക്ഷിക്കുന്ന ടവറുകളുടെ ചിത്രമാണ് ഏതാണ്ട് ഒരു പ്രദേശത്ത് തന്നെ ഏകദേശം ഏഴ് ഓളം മൊബൈൽ കമ്പനികളുടെ ടവറുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊരു സമയത്തെടുത്ത ചിത്രമാണ് ആ ഭൂപ്രകൃതികൊണ്ട് തന്നെ ഭൂപ്രകൃതി കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കൂടാതെ അവിടെ വിവിധങ്ങളായിട്ടുള്ള ഏഴ് കമ്പനികളുടെ ടവറുകൾ ഇങ്ങനെ ആകാശം മുട്ടെ ഉയർന്ന് നിൽക്കുന്ന കാഴ്ച എന്ന് പറയുന്ന ഏതൊരാളെയും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്ന് പറയാം വളരെ രസകരമായിട്ട് വളരെ ഉയർന്ന് നമ്മൾ നോക്കുമ്പം ആകാശം മുട്ടി നിൽക്കുന്ന ആകാശം മുട്ടി നിൽക്കുന്ന ഒരു ടവറ് മൊബൈൽ ടവറുകൾ കൂടാതെ മഴക്കാലത്ത് ഞാൻ എടുത്ത ഫോട്ടോ അത് മഴക്കാലത്ത് ഈ ടവറുകളിലേക്ക് ആകാശം മുട്ടിനിക്കുന്ന ടവറുകളിലേക്ക് മഞ്ഞിൻ്റെ ഒരു ബാഗ്രൌണ്ട് അതൂടെ കൂടൊള്ളൊരു ചിത്രമാണ് ആ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ചിത്രം തന്നെയായിരുന്നത് വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന വളഞ്ഞ് വളഞ്ഞ് നീങ്ങുന്ന റോഡുകളും മഞ്ഞ് ടവറ് ആകാശം മഴക്കാറ് ഇതെല്ലാം കൂടെ വന്നപ്പത്തേക്കും ആ ചിത്രം വളരെ മനോഹരമാണ് എന്ന് തന്നെ പറയാം എൻ്റെ മനസ്സിനെ വല്ലാതെ ആസ്വദിപ്പിച്ച ആസ്വദിച്ച ഞാൻ വളരെ ആസ്വദിച്ച എല്ലാരും വളരെ അധികം ആസ്വദിച്ച ഒരു ചിത്രം കൂടിയായിരുന്നത് ഞാൻ ആ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് പോകുന്ന സമയത്താണ് ഈ പറഞ്ഞ എല്ലാ അവസരങ്ങളും കൂടെ ഒത്തിണങ്ങിയ ഒരു എനിക്ക് കിട്ടിയത് ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുകയും വളരെ മനോഹരമായിട്ട് എനിക്ക് ഈ ചിത്രം പകർത്താൻ പറ്റുകയും ചെയ്തു അപ്പം അത് കണ്ടപ്പം തന്നെ എൻ്റെ മനസ്സിനൊരു കുളിർമ്മയായി വളരെ വളരെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമേതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അന്നും ഇന്നും പറയാൻ പറ്റുന്നത് ഈ ചിത്രം തന്നെയാണ് അതിന് ശേഷം ധാരാളം ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നീട് ഈ ചിത്രമെടുത്തിട്ട് തന്നെ ഏതാണ്ടൊരു ആറ് വർഷത്തോളമായി ഇന്നാ ടവറുകളൊന്നും അവിടെ ഇല്ല അതിൽ തന്നെ കുറെ ഏറെ ടവറുകൾ ഇല്ലാതായി കുറെ മൊബൈൽ കമ്പനികളില്ലാതായി ഇനി ഒരിക്കലും എടുക്കാൻ പറ്റില്ലാത്ത ഒരിക്കലും ഇനി ക് കാണാൻ സാധ്യത ഇല്ലാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു അതെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഈ ഒരു ചിത്രമാണ് എൻ്റെ മൊബൈൽ ശേഖരത്തിൽ എൻ്റെ ഗ്യാലറിയിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നതിൽ അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ചിത്രം തന്നെയാണ് വളരെ അതിനു ശേഷം ഞാൻ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഫോണിൽ ധാരാളം ചിത്രങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് അത്ര നല്ലൊരു ചിത്രം പിന്നീട് എടുക്കാൻ സാധിച്ചിട്ടില്ല വല്ലപ്പോഴും ഈ ചിത്രം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് നോക്കാറുണ്ട് അപ്പം അന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഈ ചിത്രം വളരെ അധികം ഇഷ്ടപ്പെട്ടു കുറെലം ഞാൻ എൻ്റെ ഫോണിൽ വാൾ പേപ്പറായിട്ട് ഞാൻ ഈ ചിത്രം സൂക്ഷിച്ചിരുന്നു പിന്നെ ഇപ്പോഴും പിന്നെ നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് പിന്നെ നമ്മൾ ഇടക്കിടക്ക് ഈ ചിത്രം തന്നെ സൂക്ഷിക്കാറുണ്ട് വളരെ വളരെ മനോഹരമായ ഞാൻ എടുത്ത ഈ ചിത്രത്തെപ്പറ്റി പറഞ്ഞ് എനിക്ക് അന്നും ഇന്നും വളരെ അധികം അഭിമാനമാണ് ഉള്ളത്